ഞാൻ വയനാട്ടിലെ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ വീടിനടുത്തുള്ള സിനിമ തിയേറ്ററുകൾ എന്ന് പറയുന്നത് ബ്ലൂ മൂൺ സിനിമാസ് പിന്നെ പികാസോ പെൻറ്റാ സിനിമാസ് ജോസ് തിയേറ്റർ അങ്ങനെ ഉള്ള തീയേറ്റേസ് ആണ് അങ്ങിനെ മിന്റ്റ് സിനിമാസ് എന്ന് പറഞ്ഞ മിന്റ്റ് മാളിൽ ഉള്ള സിനിമാസ് അങ്ങനെയുള്ള സിനിമാസ് ഒക്കെയാണ് എൻ്റെ വീടിന് ചുറ്റുവട്ടത്തുള്ള സിനിമ തീയേറ്റേസ് എന്ന് പറയുന്നത് ഞാൻ സിനിമ കാണാൻ ഒട്ടുമിക്ക സമയങ്ങളിലും എല്ലാം പോകാറുണ്ട് എങ്കിൽ പോലും ഞാൻ കൂടുതലും എൻ്റെ എൻ്റെ കസിൻസിൻ്റെ കൂടെയാണ് സിനിമ കാണാൻ പോകാറ് എൻ്റെ കസിൻസ് ആയിട്ട് എല്ലാരും കൂടി പോകലാണ് പതിവ് ആദ്യം പ്ലാൻഡ് ഒന്നും ആയിരിക്കുകയില്ല പെട്ടെന്നനെടുത്ത തീരുമാനത്തിലായിരിക്കും എല്ലാരും സിനിമ കാണാൻ എന്ന രീതിക്ക് പോകുന്നത്